ഞാൻ പോയതിൽ വച്ച് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയാൻ എനിക്ക് നെല്ലിയാമ്പതിയാണ് തോന്നിയത് അവിടേക്ക് പോകണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അടുത്ത വീട്ടിലെ ആ ഒരു എൻ്റെ ഫ്രണ്ട് പോണ ടൈം അവൻ്റെ ഫാമിലി പോണ ടൈം എൻ്റെ ചേച്ചിയെയും എന്നേയും വിളിച്ചു ഞാൻ പോയി ഭയങ്കര നല്ലൊരു സ്ഥലമായിരുന്നു മലകളുടെ മേലെ ഇങ്ങനെ കയറ്റം കയറി പോണത് പിന്നെ ആന വരണ വഴി കുരങ്ങുകൾ കണ്ടു വളരെ മനോഹരമായ സ്ഥലമാണ് മേലെ അറ്റം എത്തിയപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് നല്ലൊരു വ്യൂ ആയിരുന്നു ഫാമിലിയോടെ പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത് വളരെ ഇഷ്ടപ്പെട്ടു മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു എല്ലാവരും കൂടി പോയി ഫോട്ടോ എടുക്കലും എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കലും സ്നാക്സ് വാങ്ങി തിന്നലും തിന്നണതൊക്കെ കുരങ്ങുകൾക്ക് കൊടുക്കണതും അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു അവടെ നിന്ന് കിട്ടിയത്